നമസ്ക്കാരം നിങ്ങള് വീട്ടില്നിന്നും അകലെ താമസിക്കുന്ന ഒരു വിദ്യര്ത്ഥിയാണ് എന്നുള്ള വിവരങ്ങള് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു അതിനാല് നിങ്ങളുടെ ആധാര് വിശധാംശങ്ങള് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും ഈ പുതിയ നഗരത്തില് ഇതിനായി നിങ്ങൾക്കെവിടെ പോകണമെന്ന് ഉറപ്പില്ല എന്നുള്ളതും നമ്മള് മനസ്സിലാക്കിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് മാറിയ നിങ്ങളുടെ ആധാര് വിശദാംശങ്ങള് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഡേറ്റിനായി ഏറ്റവും അടുത്തുള്ള ആധാര് എൻട്രോൾമെൻ്റ് സെൻ്റർ എവിടെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുമുള്ള ഉപദേശം തരാനാണ് നിങ്ങള്ക്ക് ഈ സന്ദേശം ഞങ്ങളയക്കുന്നത് എറണാകുളത്തിലെ മെയിൻ ജംഗ്ഷനില് നിന്നും മുന്നൂറ് മീറ്റര് മാറി അകത്തേക്ക് വലത്തേ വശത്ത് മൂന്നാമത്തെ കെട്ടിടത്തില് രണ്ടാമത്തെ നിലയില് സ്ഥിതിചെയ്യുന്ന അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ടാല് നിങ്ങള്ക്ക് ഈ പ്രശ്നം ദൂരീകരിക്കാനാവും മാറിത്താമസിച്ച നിങ്ങള്ക്ക് എത്രയും വേഗം തന്നെ ആധാര് അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഞങ്ങള് മനസ്സിലാക്കുന്നു ഇതിനായി അക്ഷയ സെൻ്ററിലെ ഉദ്യോഗസ്ഥയായ സിനിയുമായി ബന്ധപ്പെട്ടാല് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനാവും സിനിക്ക് നിങ്ങളെ സഹായിക്കാന് കഴിയും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുമെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കില് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാന് നിങ്ങള് മടിക്കരുത് ഇതിനായി പൂജ്യം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങള് കോണ്ടാക്റ്റ് ചെയ്യുക ഇത്രയും നേരം എന്റെ വാക്കുകള് ശ്രവിച്ച നിങ്ങള്ക്ക് നന്ദി അറിയിക്കുന്നു നന്ദി